ക്ലാസിക്കൽ നൃത്തവും മോഡേൺ നൃത്തവും രണ്ടിനും രണ്ട് അതിന്റേതായ ഗുണങ്ങളുണ്ട് ഞാൻ ഇതു രണ്ടും പഠിച്ചിട്ടുണ്ട് ക്ലാസിക്കൽ നൃത്തം ഞാൻ ചെറുപ്പത്തിലത് ഏഴാം ക്ലാസ് ഭരതനാട്യം മോഹിനിയാട്ടവും ഒക്കെ പഠിച്ചു പിന്നെ അതങ്ങു നിർത്തി പിന്നെ കൂടുതലായിട്ടും ഫോക്ക് ഡാൻസ് തിരുവാതിര പിന്നെ മാർഗ്ഗംകളി ഒപ്പന അങ്ങനെയുള്ളൊരു ഇതിലേക്കങ്ങു പോവുകായിരുന്നു പിന്നെ ക്ലാസിക്കൽ ഡാൻസിനാകുമ്പോള് അതിന്റേതായ മുദ്രകളും ചലനങ്ങളും നിയമങ്ങളും ഒക്കെയുണ്ട് ബാക്കി ഉള്ളത് നമ്മളെ പെട്ടെന്ന് അത്രയൊന്നും ഓർത്തിരുന്നില്ലെങ്കില് നമുക്ക് ആ താളമൊക്കെ കിട്ടി ഒക്കെയങ്ങു പഠിക്കാം നൃത്തങ്ങളൊക്കെ കളിക്കുന്നതുകൊണ്ടു നമുക്കൊരു നല്ലൊരു എക്സർസൈസാണ് നമ്മുടെ മനസ്സിനു സന്തോഷം തരും നമ്മുടെ ശരീരത്തിനൊരു അയവു കിട്ടും ശരീരം അങ്ങനെ പല ഗുണങ്ങളുമുണ്ട് നമുക്കു കിട്ടുമ്പോള് കിട്ടുന്ന ഒരു എന്ന് ഒരു പാട്ടു കിട്ടിയൽ അതിൻ്റെ താളത്തിനനുസരിച്ചു നമുക്ക് സ്റ്റെപ്പിടാനും ഒക്കെ സാധിക്കുന്നത് ഈ മോഡേൺ നൃത്ത രീതികളിലാണ് അതിനാവുമ്പോള് പ്രത്യേകിച്ചൊരു ടീച്ചറിൻ്റെ ആവശ്യമില്ല നമുക്കു സ്വയം ചിട്ടപ്പെടുത്തിയെടുക്കാം